ഒരുചിരി ഇരുചിരി ബംബർ ചിരി എന്നു പറഞ്ഞൊരു ഷോയുണ്ട് മലയാള മനോരമയില് അതൊരു കോമഡി ഷോസാണ് ഇങ്ങനെ കോമഡി ചെയ്യുന്ന ആൾക്കാരിങ്ങനെ സ്കിറ്റായിട്ട് വന്ന് ഒരു ഒരു ടൈം ത്രെഡ് കൊടുത്തിട്ടുണ്ടാവും അതിനു ചെയ്യുന്ന പരിപാടികളാണ് വളരെയധികം വിജയകരമായിട്ടാണാ പരിപാടി മുന്നോട്ട് പോകുന്നതിപ്പോള് അതിന്റെ അവതാരകൻ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞൊരു ചെക്കനാണ് അവൻ യു ട്യൂബിലൂടെ ഫേമസായിട്ട് ഇപ്പോള് അവതാരകനായിട്ട് മലയാള മനോരമയില് കയറിയേക്കാണതാണ് കുറേ മൂന്ന് ജഡ്ജസുണ്ട് ഭയങ്കര നല്ല കോമഡിയായിട്ടുള്ള കുറേ സ്കിറ്റുകളതിനകത്ത് വരാറുണ്ട് അതിന്റെ സമയം തിങ്കൾ മുതൽ വെള്ളി വരെ ഒമ്പത് മണിക്കാണ് മലയാളമനോരമയില് നമ്മളതിൻ്റെ പ്രമോയൊക്കെ കാണുമ്പോഴും നമ്മള് ഭയങ്കരമായിട്ട് ആകൃഷ്ടയാവും അത് കാണാനായിട്ട് ഭയങ്കര നല്ല ഷോയാണ് നമ്മള് അധികം തമാശയൊന്നും ഉണ്ടാകില്ല എന്നു വിചാരിക്കും ഫസ്റ്റ് പക്ഷെ കുറേ അടിപൊളി സ്കിറ്റുകളുണ്ടാകാറുണ്ട് അതുപോലെ തന്നെയാണ് സ്റ്റാർ മാജിക്കെന്നു പറഞ്ഞ ഷോ അതിന്റെയകത്ത് അവര് അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് അതിനകത്ത് എങ്ങനെയാണെന്നുവച്ചാല് അതിനകത്തും സ്കിറ്റുകളുണ്ടാകും പിന്നെ ഗെയിംസുകളുണ്ടാകും സ്കിറ്റുകളായാലും നല്ല കോമഡി സ്കിറ്റുകളാണ് പിന്നെ ഗെയിംസുകളുണ്ടാവും പിന്നത് രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് കളിക്കുന്ന ഗെയിംസാണ് അതിനകത്ത് ഓരോരോ ഇൻറ്റിവിജ്വൽസും ഓരോ കോമഡി ആർട്ടിസ്റ്റുകളും സീരിയല് ആർട്ടിസ്റ്റുകളാണുണ്ടാവാറ് വളരെ നല്ലൊരു ഷോ ആണ് ആ ആ പെണ്ണിൻറ്റവതാരക രീതി ആയാലും ഭയങ്കര രസമായിട്ട് ആ പെണ്ണ് ചെയ്യാറുണ്ട്